ഇത് ഈ തൊഴിൽ രസകരമായി തോന്നുന്നത് മീൻ കിട്ടുവാനും കിട്ടാതിരിക്കുവാനും ഉള്ള സാധ്യത ഉണ്ട് സാധ്യത ഉണ്ട് കാരണം ഇത് നമ്മൾ കൂടുതൽ അധ്വാനാ അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനം കൂടുതൽ നമുക്ക് ഈ നമുക്ക് പൈസ മുതൽമുടക്കുള്ള ഒരു മേഖലയല്ല നമുക്ക് ഈ ജലാശയങ്ങളിൽനിന്ന് ദൈവം പ്രകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾ നമ്മളെ സ്വന്ത അധ്വാനം കൊണ്ടും നമ്മൾ നേടിയെടുത്ത അത് നമ്മളെ നമ്മുടെ അധ്വാനംകൊണ്ട് നമ്മൾ അത് നമ്മൾ നമ്മളെ മുതൽ മുതലാക്കിമാറ്റുന്ന ഒരു ഘടകമാണ് ഘടകം ഏത് തലമുറയ്ക്കും അഭ്യസ്തരായ വ്യക്തി അഭ്യസ്തർക്കും ഉദ്യോഗം കിട്ടുവാനൊക്കെ സാധ്യതയുള്ള കാലഘട്ടമാണ് എന്നാൽ വിദ്യാഭ്യാസമേഖല എല്ലാവർക്കും പഠിച്ചുകൊണ്ട് എഴുതാൻ പറ്റാത്ത ജോലി കിട്ടാത്തവർക്കും ഈ മേഖല തിരഞ്ഞെടുക്കാവുന്ന ഒരു മേഖലയാണ് അത് നമുക്ക് അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൂടുതൽ മുതൽമുടക്കില്ലാതെ നമുക്ക് മൽസ്യബന്ധനത്തിൽ ഏർപ്പെട്ട നമുക്ക് നമ്മുടെ ഉപജീവനമാർഗ്ഗമാക്കി മാറ്റാൻ അതുവഴി നമുക്ക് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ എന്ന ഉള്ളൊരു മേഖലയാണ് ഈ മേഖലയിൽ വളരെ കുറച്ച് ആൾക്കാർ ഇപ്പം പുതുതായിട്ട് പുതിയയിട്ട് ആരും വരുന്നില്ല പരമ്പരാഗത പാരമ്പര്യമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഈ തൊഴിൽമേഖല ആശ്രയിക്കുന്നുള്ളൂ ഇതൊരു ബുദ്ധിമുട്ടുള്ള മേഖലയുംകൂടെയാണ് കാരണം ശരീരധ്വാനം ഇത് ദിവസവും ഒന്ന് ചെയ്യുന്നതോളം മനുഷ്യന് ക്ഷീണമുണ്ടാകാനുള്ള ശരീരത്തിന് ക്ഷീണമുണ്ടാകാനുള്ള സാധ്യതകളും മുമ്പ് ഈ കാലാവസ്ഥയും കാലാവസ്ഥയോട് പ്രതിരോധിച്ച് കൊണ്ട് വേണം നമുക്ക് ഈ ഈ ബന്ധനം ഈ മൽസ്യബന്ധന മേഖലകളിൽ ഇടപെടുവാനും അതുകൊണ്ട് നമുക്ക് ആരോഗ്യപ്രശ്നങ്ങളുണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഓ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ നമുക്ക് നമുക്ക് സമ്മതം മുടക്കില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്ന ഒരു മേഖലയാണ് അത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുക്കാവുന്ന ഒരു മേഖലയും കൂടെയാണ് അത് അവനവനിൽ നിക്ഷിപ്തമായ ഒരു കാര്യമാണ് നമ്മുടെ ഏത് തൊഴിൽമേഖല തെരഞ്ഞെടുക്കണം എന്നുള്ളത് അത് ഈ മൽസ്യബന്ധനം ആണെങ്കിൽ മുതൽമുടക്ക് കൂടുതൽ ഇല്ലാതെ നമുക്ക് അത്യാവശ്യം വലയും വള്ളവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട്പോയി ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ട്പോകാൻ പറ്റുന്ന ഒരു മേഖല കൂടെയാണ് ആ അതാണ് നമുക്ക് എനിക്ക അതിനകത്ത് സാധാരണ ജനങ്ങൾക്ക് നമുക്ക് കണ്ടെത്താവുന്ന ഒരു തൊഴിൽ മേഖലയാണ് അതാണെനിക്ക് അതിനകത്ത് കൂടുതൽ ആകൃഷ്ടമാ ആകർഷിക്കുന്ന ഒരു മേ തുടർന്ന് വേണ്ടതെന്നും നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഏത് തൊഴിലും അതിൻ്റെതായ അന്തസ്സും അഭിമാനവും കാണാൻപറ്റും അതാണ് അതിൽനിന്ന് മനസ്സിലാക്കേണ്ടത്